വളരേ നല്ലൊരു പ്രോഡക്റ്റ് കെട്ടോ ഞാനിത് യൂ ട്യൂബില്നിന്ന് റിവ്യൂ കണ്ട് എടുത്തതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കെട്ടാ ഭയങ്കരമെന്നു പറഞ്ഞാല് ഭയങ്കരമായി നല്ല സൗണ്ടിപ്പോ ക്വാളിറ്റി ചെറിയ മോഡിൽ തന്നെ ഇപ്പോള് സോണിയൊക്കെ ഇതിലേറെ എത്രയോ വലിയ അമൗണ്ട് കൊടുത്ത് മേടിക്കണം എന്നാലേകദേശം അതുപോലെ എത്താന് കഴിയുന്ന അടിപൊളി സൗണ്ട് ക്വാളിറ്റി കെട്ടോ ഞാനുപയോഗിക്കുന്നതില് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് അടിപൊളിയായി ഡെലിവറിയും പെട്ടെന്നെനിക്ക് കിട്ടിച്ചെയ്തു ബോട്ടിൻ്റെ അടിപൊളി അടിപൊളി ഒരു ഹെഡ്ഫോണ് തന്നെ പറയാം നല്ല ടൈമിങ്ങുമുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് മണിക്കൂര് ടൈമും കിട്ടുന്നുണ്ട് ഒറ്റച്ചാർജ്ജിൽത്തന്നെ സിങ്കിൾ ചാർജ്ജിൽത്തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബുക്കും ഉപയോഗിക്കാന് തന്നെ അടിപൊളി നല്ലൊരു നാക്കുണ്ട് ഉപയോഗിക്കാന് തന്നെ നല്ല സുഖമാണ് പിന്നതേമാതിരി സൗണ്ട് പുറത്തേക്കങ്ങനെ പോകുന്നുമില്ല ഇതിന്റെ മറ്റേ ബ്ലൂട്ടൂത്തൊക്കെ അത്രയും പവർഫുള് ഒരു പോയിൻറ്റ് ഫൈവൊക്കെ കിട്ടുന്നുണ്ട് നല്ല നല്ലൊരു പ്രോഡക്റ്റ് ആണ്